ഹലോ റോഷ്നി മാം അല്ലെ ഞാൻ ഞാൻ ഇവിടെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന റയ്ഹാന്റെ പേരൻ്റ് ആണ് ഞാൻ റെയ്ഹാൻ്റെ അക്കാഡമിക് ഇമ്പ്രൂവ്മെൻ്സിനെ കുറിച്ച് അറിയാൻ വേണ്ടി വിളിച്ചതാണ് പേരൻസിന് വൈഫ് ആണ് വന്നത് പുതിയ ഹോം വർക്കുകൾ കൃത്യമായി ചെയ്ത് വരുന്നില്ലേ അവൻ ക്ലാസ്സിൽ ശ്രദ്ധിക്കാനുള്ള കഴിവൊക്കെ എങ്ങനെ ഉണ്ട് ആ തലേ ദിവസമാണ് കൂടുതൽ പഠിക്കാറുള്ളത് പിന്നെ അവൻ സ്കൂളിലെ വീട്ടിൽ അവൻ കളിക്കാൻ പോകാറുണ്ട് കളി കഴിഞ്ഞു വന്നിട്ട് നൈറ്റ് ഇരുന്ന് പഠിക്കാറുണ്ട് ആ ട്യൂഷൻ കൊടുക്കുന്നുണ്ട് ഓക്കേ ഓക്കേ ഇതാണ് ശരിക്കും പ്രോബ്ലം ആയിട്ടുള്ളു ആ വീട്ടിൽ വന്നിരുന്ന് ചെയ്യുന്നുണ്ട് സ്കൂളിൽ അവൻ്റെ കമ്മ്യൂണിറ്റി സ്കില്ലൊക്കെ എങ്ങനെ ഉണ്ട് അപ്പോൾ സ്കൂളിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഒക്കെ എങ്ങനെ ഉണ്ട് ഇവൻ മെയിൻ മാതസിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കാം ഓക്കേ മാം താങ്ക് യു ഇല്ല മാത് സിനും ഇംഗ്ലീഷിനും മാത്രമേ ട്യൂഷൻ കൊടുക്കുന്നുള്ളു ആ ഓക്കേ ഞാൻ ഒന്നു കൂടെ ശ്രദ്ധിച്ചോളാം ഓകെ ഓക്കേ താങ്ക് യു